ക്ലൈമറ്റ് ഇപ്പോൾ ചെറിയ മഴ ഉണ്ട് ഇപ്പം ടൂറിസ്റ്റിന് ഏറ്റവും വരാൻ പറ്റിയ നല്ല ഒരു ക്ലൈമറ്റ് ആണ് ഇപ്പോഴത്തേത് ഓ വെതർ ഒക്കെ ആണെങ്കിലും മോർണിങ്ങിൽ നല്ല മിസ്റ്റും കാര്യങ്ങൾ ഒക്കെയുണ്ട് അപ്പം മോർണിങ്ങിൽ ഒരു സിക്സ് ഒ ക്ലോക്കിനുള്ളിൽ ഒക്കെ ആണെങ്കിൽ ഫിഫ്റ്റീൻ ഫോർറ്റീൻ ആ റേഞ്ചിൽ ഒക്കെയാണ് വരുന്നത് മാക്സിമം പോവുവാണെങ്കിൽ തന്നെ നമുക്കൊരു ട്വന്റി സിക്സ് ട്വന്റി സെവനോ വരുള്ളൂ ഞങ്ങൾ ഇപ്പോൾ താഴോട്ട് ഒക്കെ കോഴിക്കോടിന് താഴോട്ട് നോക്കുവാണെങ്കിൽ എങ്ങനെ ആയാലും മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലിന് മേലോട്ട് ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് ഈ പിന്നെ ഈവെനിംഗ് ആണെങ്കിലും അതിൽ ചെറിയ ചാറ്റൽ മഴയുണ്ട് ചാറ്റൽ മഴ ഉണ്ടെങ്കിലും പിറ്റേ ദിവസം രാവിലെ ട്രക്കിങ്ങ് ഒക്കെ ചെയ്യാൻ നല്ല മിസ്റ്റ് കാര്യങ്ങൾ ഫോഗ് ഒക്കെ അവൈലബിൾ ഇപ്പോൾ നല്ല രീതിയിൽ വരുന്നുണ്ട് ജൂൺ ജൂലൈ ആണല്ലോ മഴയും കാര്യങ്ങളും ആവുന്നത് അതുകൊണ്ട് അത്യാവശ്യം ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് വയനാട്ടിലോട്ട് നോക്കുന്നുണ്ടോ ഇല്ല ഇല്ല ഇല്ല മോർണിങ്ങിലാണ് ഏറ്റവും നല്ലത് കാരണം ബ്ലോക്ക് ഉണ്ടാവില്ല ഫുൾ നല്ല ഫോഗ് കയറി കിടപ്പുണ്ടാകും മിസ്റ്റ് ആയിരിക്കും അപ്പോൾ നല്ല വ്യൂ ആയിരിക്കും ആ വ്യൂ പോയിന്റിലൊക്കെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിട്ട് ഉണ്ടാവും

പിന്നെ ഉച്ച ഉച്ച ചില ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞ് നല്ല മഴയും പെയ്യുന്നുണ്ട് എന്നുവെച്ച് ഭയങ്കര കാറ്റും മഴയുമല്ല നോർമ നോർമൽ ആയിട്ടുള്ള മഴയാണ് താഴത്തെ സംബന്ധിച്ച് ചൂട് വളരെ കുറവാണ് മ് മ് ആ റൂം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഏത് ടൂറിസ്റ്റ് പ്ലേസ് ആണോ വരുന്നത് അതിൻ്റെ നിയർബയ് ഇത് അങ്ങോട്ട് റിസോർട്ടുകളുണ്ട് ലോഡ്ജുകളുണ്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും ബുക്കിങ്ങ് അവൈലബിൾ ആണിപ്പം ഇപ്പം സീസൺ ആയി വരുന്നതേ ഉള്ളൂ സീസൺ ടൈം ആകുമ്പോഴത്തേക്കും റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും ഉം നമുക്ക് കാണാനൊക്കെ ചുരം കയറി വരുമ്പോൾ തൊട്ട് ആണെങ്കിലും നമുക്ക് വ്യൂ പോയിന്റ് ചില ഫസ്റ്റ് വ്യൂ പോയിന്റ് ഉണ്ട് പിന്നെ കരിന്തണ്ടൻ്റെ ചങ്ങല മരമുണ്ട് അത് കഴിഞ്ഞ്കഴിഞ്ഞ് പൂക്കോട് ലേക്സ് ഉണ്ട് അത് കഴിഞ്ഞാൽ ബാണാസുര സാഗർ ഉണ്ട് കാരാപ്പുഴ ഡാം മീൻമുട്ടി വാട്ടർഫാൾസ് മീശപ്പുലിമല പടിഞ്ഞാറേത്തറ ലേക്ക് ഡാമ് ഡാം സൈറ്റ് തോൽപ്പെട്ടി വൈൽഡ് സാങ്ച്വറി മുത്തങ്ങ വൈൽഡ് സാങ്ച്വറി പിന്നെ മ്യൂസിയം പഴശ്ശി ടോംമ്പ് പഴശ്ശി പാർക്ക്